ഇരുപത്തൊമ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി രണ്ട് പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി നാല് ഇരുപത്തിനാല് പന്ത്രണ്ട് രണ്ടായിരത്തി നാല് നാല് ഏഴ് രണ്ടായിരത്തി ഏഴ് പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് പത്തൊമ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന്